സ്കൂളുകൾ നമുക്ക് പല തരത്തില കാണാൻ പറ്റും സർക്കാർ സ്കൂളുകളുണ്ട് സ്വകാര്യ മേഖലയുടെ സ്കൂളുകളുണ്ട് ഈ സർക്കാരിൽ തന്നെ സ്വകാര്യം നമ്മൾ മിക്സ്ഡായ അതായത് ചില സീറ്റുകൾ നമ്മൾ സർക്കാർ സീറ്റുകൾ നൽകുന്ന സ്വകാര്യ സ്കൂളുകളും ഉണ്ട് ഇപ്പം സ്കൂളുകളുടെ എല്ലാം ആത്യന്തികമായ ഉദ്ദേശം എന്നു പറയുന്നത് കുട്ടികളെ പഠിപ്പിക്കുക അത് തന്നെയാണ് എല്ലാ സ്കൂളുകളുടെയും അത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്നാൽ ചില സമയങ്ങളിൽ ഈ സ്കൂളുകൾ തമ്മിൽ ചില വ്യത്യാസങ്ങൾ വരാറുണ്ട് സർക്കാർ സ്കൂളുകളും മറ്റു വിദ്യാലയങ്ങൾ പൊതുവിദ്യാലയങ്ങളും പ്രൈവറ്റ് വിദ്യാലയങ്ങൾ തമ്മിൽ വ്യത്യാസം വരാം ഇപ്പം പണ്ട് കാലങ്ങളിൽ ഈ പൊതുവിദ്യാലയങ്ങളായിരുന്നു കുറച്ചു കൂടെ മുൻപന്തിിയിലായിരുന്നത് പൊതുവിദ്യാലങ്ങൾക്കായിരുന്നു കുറച്ചു കൂടെ പ്രാധാന്യം നൽകിയിരുന്നതും വിദ്യാഭ്യാസം കൂടെ മൂല്യ അധിഷ്ഠിതമായി നൽകയിരുന്നതെന്ന് പറയാം എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വരുമ്പോൾ ഒത്തിരി നമ്മുടെ ഓരോ സ്ഥലങ്ങൾ പ്രാദേശിക സ്ഥലങ്ങൾക്കനുസരിച്ചു അല്ലെങ്കിൽ ഓരോ സ്ഥലത്തിലും ഓരോ ഓരോ പ്രൈവറ്റ് വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ സ്വകാര്യ സ്കൂളുകൾ വന്നതോടുകൂടി സ്കൂളുകളുടെ എണ്ണം ക്രമാധീതമായി കൂടി അങ്ങനെ പൊതുവിദ്യ വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ സർക്കാർ സ്കൂളുകിൽ പോകുന്ന കുട്ടികളുടെ എണ്ണത്തിലും വല്യ തരത്തിലുള്ള മാറ്റങ്ങളുണ്ടായി ഇപ്പം കൂടുതലും അല്ലെങ്കിൽ ഫീസ് വാങ്ങി പഠിപ്പിക്കുന്ന സ്കൂളുകൾ മാത്രമേ നല്ല രീതിയിൽ പഠിപ്പിക്കൂ എന്നുള്ള ഒരു ചിന്ത സാധാരണ ആൾക്കാരുകളിലേക്കും ഇറങ്ങി വന്നപ്പോൾ സാധാരണ ആൾക്കാർ പോലും പണം കൊടുത്തു പഠിപ്പിക്കാൻ കഴിവില്ലാത്തവർ പോലും കടം വാങ്ങിയും മറ്റു രീതിയിൽ അല്ലെങ്കിൽ കടം വാങ്ങിയൊക്കെ എന്തു ചെയ്യുന്നു കുട്ടികളെ സ്വകാര്യ സ്കൂളുകളിലേക്ക് വിടുന്നുണ്ട് ഒരുപക്ഷെ മൂല്യത്തിൽ വ്യത്യാസം വന്നേക്കാം അല്ലെങ്കിൽ പൊതുവിദ്യാലയങ്ങൾ സർക്കാർ വിദ്യാലയങ്ങളാണ് കുറച്ചുകൂടി നല്ലതെങ്കിൽ പോലും ചില സമയങ്ങളിൽ അതിൻ്റെ സ്ട്രക്ച്ചറുകൾ വച്ചു നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സ്കൂളുകൾ നമ്മടെ സർക്കാർ സ്കൂളുകളെന്ന് പറയുമ്പോൾ കുറച്ചു കൂടെ ഫെസിലിറ്റി കുറഞ്ഞതായിരിക്കാം മറ്റേതാണെങ്കിൽ കുറച്ചു കൂടെ സ്ട്രക്ച്ചറുള്ളതും കുറച്ചു കൂടെ കാണാൻ മോടി പിടിപ്പിച്ചതും കുറച്ചു കൂടെ ഫെസിലിറ്റീസ ഒക്കെ ഉള്ളതായിരിക്കാം കമ്പ്യൂട്ടർ അങ്ങനെ പോലെയുള്ള മാറ്റങ്ങളൊക്കെ ആദ്യകാലങ്ങളിൽ ഈ സർക്കാർ സ്കൂളും പൊതു സർക്കാർ സ്കൂളും സ്വകാര്യ സ്കൂളും തമ്മിലിങ്ങനെ വ്യത്യാസം ഉണ്ടായിരുന്നു അതായത് സർക്കാർ സ്കൂളിനേക്കാളും കുറച്ചു കൂടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നത് പ്രൈവറ്റ് സ്കൂളുകളിലായിരിക്കാം എന്നാൽ ഇന്ന് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ നമുക്ക് വേർതിരിച്ചു പറയാൻ സാധിക്കില്ല സർക്കാർ സ്കൂളുകൾ തന്നെയാണ് ചില സ്ഥലങ്ങളിലെങ്കിൽ പോലും അല്ലെങ്കിൽ ചില സർക്കാർ സ്കൂളുകൾ ചില എന്നു പറയാൻ പറ്റില്ല ഒരു എൺപത് ശതമാനത്തിൽ കൂടുതലും സർക്കാർ സ്കൂളുകളും ഇന്ന് നമ്മുടെ സ്വകാര്യ വിദ്യാലയങ്ങളുടെ സ്വകാര്യ വിദ്യാലയങ്ങളോടൊപ്പം അഥവാ സ്വകാര്യ വിദ്യാലയങ്ങളുടെ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് സൗകര്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ സ്വകാര്യ സ്കൂളുകൾക്കൊപ്പം സർക്കാർ സ്കൂളുകളിലും എത്തിയിട്ടുണ്ട് അപ്പം ഇപ്പം സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താൻ ഇപ്പം ഇച്ചിരി ബുദ്ധിമുട്ട് അതാണ് എങ്കിൽ പോലും എണ്ണം വിദ്യാർത്ഥികളുടെ എണ്ണം ഒത്തിരി കുറവാണ് നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളിൽ അപ്പം അതിന് കാരണം കാരണം പറയുന്നത് കാരണം പല കാരണങ്ങൾ പറയാം പല കാരണങ്ങളുണ്ട് നമ്മൾ എന്തുകൊണ്ടാാണ് പൊതു വിദ്യാഭ്യാസം അല്ലെങ്കിൽ പൊതു വിദ്യാലയങ്ങളിൽ പൊതു വിദ്യാലയങ്ങളിൽ കുട്ടികളുടെ എണ്ണം കുറവാകുന്നത് അല്ലെങ്കിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നതിന് കാരണം പക്ഷേ അവരുടെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഫീസ് നമ്മുടെ ചിന്താഗതിയിലാണ് ആ ഒരു മാറ്റം ഒരുപാട് പൈസ കൊടുത്താലേ നല്ല രീതിയിൽ പഠിപ്പിക്കൂ എന്നുള്ള ഒരു ചിന്ത മനുഷ്യരുടെ ഉള്ളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ അത് തന്നെയാണ് നമ്മളെ എല്ലാവരെയും സ്വകാര്യ വിദ്യാലയങ്ങളിലേക്ക് ആകർഷിക്കുന്നത് അതുപോലെ അവരുടെ ഒരു വേഷവിധാനങ്ങൾ അധ്യാപകർ ഒരുപോലെയുള്ള വേഷങ്ങൾ ധരിച്ചു വരുന്നത് കുട്ടികൾക്ക് സ്റ്റാൻഡേർഡായിട്ടുള്ള യൂണിഫോമുകളൊക്കെ നൽകുന്നത് ഷൂസ് സോക്സ് ട്ടായി ഇതൊക്കെ ധരിച്ചു വന്നാൽ മാത്രമേ നല്ല വിദ്യാഭ്യാസം ഉള്ളവർ അല്ലെങ്കിൽ ഈ സ്കൂൾ ഇങ്ങനെയുള്ള സ്കൂളിൽ പഠിക്കുന്നവരാണ് മികച്ച വിദ്യാഭ്യാസം നേടുന്നവരെന്നുള്ള ചിന്ത അറിഞ്ഞോ അറിയാതെയോ സാധാരണക്കാരുടെ ഉള്ളിൽ പോലും നിറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർ എന്താണ് പറയുന്നത് അപ്പം പൊതുവിദ്യാലയങ്ങൾ അല്ലെങ്കിൽ സർക്കാർ സ്കൂളിൽ ഇങ്ങനെയുള്ള വലിയ സംവിധാനങ്ങളും ട്യൂഷ നമ്മൾ ഇപ്പം എന്താണ് പറയുക ടൈ ഷൂവ് സോക്സ് അല്ലെങ്കിൽ വില കൂടിയ വസ്ത്രങ്ങൾ യൂണിഫോമുകൾ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ വില കുറഞ്ഞ നമ്മൾ പൊതുവിദ്യാലയങ്ങൾ കാണുന്നത് അപ്പം അപ്പം അതൊന്നുമല്ല ഇപ്പം നമ്മുടെ പറമേ കാണുന്ന വേഷങ്ങളൊന്നും അല്ല നമ്മുടെ വിദ്യാലയം എന്നു പറഞ്ഞാൽ വിദ്യ അഭ്യസിക്കേണ്ട സ്ഥലങ്ങളാണ് അപ്പോൾ സ്കൂളുകൾ എപ്പോഴും നമ്മുടെ നമ്മുടെ മൂല്യത്തിന് അധിഷ്ടിതമായിരിക്കണം സ്വകാര്യ വിദ്യാലയങ്ങളും സർക്കാർ വദ്യലയം നമ്മൾ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യത്യാസം പല രീതിയിൽ പറയുമ്പോഴും നമ്മൾ വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങൾകൊക്കെ എല്ലാ സ്ഥാപനങ്ങൾകൊക്കെ ഒരു ലക്ഷ്യമുള്ളത് കുട്ടികൾക്ക് മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലങ്കിൽ വിദ്യ അഭ്യസിക്കുക എന്നുള്ള ഒരു അർഥം മാത്രം മതി എന്നാണ് എൻ്റെ ഉദ്ദേശം എങ്കിലും വ്യത്യാസങ്ങളുണ്ട് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞത് പോലെയുള്ള വ്യത്യാസങ്ങൾ നമ്മൾ രണ്ട് സ്കൂളുകൾക്കും ഉണ്ട് അതുകൊണ്ട് തന്നെയായിയിരിക്കാം സാധാരണ ആൾക്കാർ പോലും ഇപ്പോൾ സ്വകാര്യ വിദ്യാലയങ്ങൾ തേടി പോകുന്നത് എങ്കിൽ മറ്റുള്ളവർ മറ്റു രീതിയിൽ അല്ലെങ്കിൽ ആൾക്കാരെ സംസാരങ്ങളിൽ പോലും ചില വ്യത്യാസങ്ങൾ വരാം പൊതു നമ്മുടെ പൊതുവിദ്യാലയങ്ങളെന്ന് പറയുമ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളൊക്കെ കുട്ടികുടെ സംസാരം അല്പം രീതിയിൽ സ്റ്റാൻഡേർഡ് കുറഞ്ഞ രീതിയിലുള്ള സംസാരങ്ങളും മറ്റു വിദ്യാലയങ്ങൾ അവിടെ ഇംഗ്ലീഷെ പറയാവൂ എന്ന് പറയുന്ന ആ ഒരു ഒരു അത്രമാത്രം സ്ട്രിക്റ്റ് ആകുമ്പോഴത്തേക്കും കുട്ടികൾ കുറച്ചു ഡെവലപ്പാവും എന്നുള്ള സങ്കൽപ്പവും നമ്മൾ ഇങ്ങനെ കുട്ടികളെ മാറ്റുന്ന ഒരു രീതിയിൽ ഉണ്ട് അങ്ങനത്തെ ഒരു വ്യത്യാസം ഉണ്ട് നമ്മൾ എത്ര തന്നെ പറഞ്ഞാലും സർക്കാർ വിദ്യാലയങ്ങളും ഇംഗ്ലീഷ് നിർബന്ധം എന്നു പറഞ്ഞാൽ പോലും അങ്ങനെ അത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യാറില്ല പക്ഷെ സർക്കാർ എന്നാൽ സ്വകാര്യ സ്കൂളുകളിൽ അത് സ്ട്രിക്റ്റായിട്ട് ചിലപ്പോൾ ഫോളോ ചെയ്യുകയും അത് ചെയ്തില്ലെങ്കിൽ ഫൈൻ അടയ്ക്കാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപടിക്ക് ചില സമയങ്ങളിൽ സ്വകാര്യ വിദ്യാലയങ്ങൾക്ക് ആൾക്കാർ മുൻതൂക്കം നൽകുന്നു